കോഴിക്കോട് ജില്ലയില് ശ്രദ്ധേയമായിട്ടുള്ള ലാൻഡ്മാർക്കുള്ളചരിത്രമായുള്ള സ്ഥലങ്ങളുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം പിന്നെ കാപ്പാട് ബീച്ച് നമുക്ക് പറയാം നമുക്ക് വാസ്കോഡഗാമ പിന്നെ ഇറങ്ങിയ സ്ഥലമാണ് കാപ്പാട് ബീച്ച് നമ്മുടെ കോഴിക്കോട് അങ്ങനെയൊക്കെ അറിയപ്പെടും പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേപ്പൂർ സുൽത്താൻ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറു ഉള്ള സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്രങ്ങളും കോട്ടങ്ങളും കോട്ടകള് മ്യൂസിയങ്ങള്

ഒരുപാട് ഇതുണ്ട് നമുക്ക് അതായത് എല്ലാ സമയത്തും അത് തുറന്നിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ക്ഷേത്രങ്ങളൊക്കെ ഇപ്പം എല്ലാ സമയത്തും എല്ലാവർക്കും വേണ്ടി തുറക്കുകയില്ല കാരണം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിലൊക്കെ ഒരിതുണ്ട് ഹിന്ദുക്കള് മാത്രം പോകണം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യ ഉണ്ട് ക്ഷേത്രത്തില് അപ്പം എല്ലാ മുസ്ലി അതായത് മുസ്ലീംസാണേൽ മുസ്ലീംസിൻ്റെ പള്ളികള് പിന്നെ ക്രിസ്ത്യാനികള് ക്രിസ്ത്യനികളുടെ പള്ളികള് അല്ലാണ്ട് ഇപ്പം അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊന്നും തുറന്നിട്ടില്ലെങ്കിലും കൊട്ടകള് മ്യൂസിയങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടുണ്ട് പിന്നെ അതായത് പലപ്പോഴും നമ്മുടെ ഇവിടെ കോഴിക്കോടുകാരൊക്കെ കൂടുതലും പിന്നെ ഒഴിവു സമയം ചെലവഴിക്കുന്നത് ബീച്ച് ബീച്ചുകളിലൊക്കെയായിരിക്കും കൂടുതലും അവിടെ പോയി ഇരിക്കാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പിന്നേന്ന് വെച്ചാൽ നമ്മളുടെ ക്ഷേത്രം അതായത് ഫെയിമസായിട്ടുള്ള തളിക്കുന്ന് മഹാശിവക്ഷേത്രം ഉണ്ട് മിട്ടയിത്തെരുവുണ്ട് നമുക്കേറ്റവും ഫെയിമസായിട്ടുള്ള സംഭവമാണ് മിട്ടായിതെരുവ് ദൂരെന്നൊക്കെ ആൾക്കാര് വന്നിട്ട് നമ്മുടെ മിട്ടായിത്തെരുവിൽ പർച്ചെയ്സ് ചെയ്യാനൊക്കെ വരുന്നുണ്ട് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റിച്ചിറ പിന്നെ ഒരുപാട് സ്ഥലം ഉണ്ട് നമ്മുടെ കോഴിക്കോട് പറയ്നാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉണ്ടാവും